ഇപ്പോൾ എൻറെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ഒരാളെ വാക്കുകൊണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക കൈകൊണ്ടുള്ള അടിയും കാര്യങ്ങളൊന്നും നൽകാണ്ട് വാക്കുകൊണ്ട് പ്രയോഗിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ അതായത് ഒരു അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മള് നമ്മുടെ രീതിയിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പിന്നെ എന്താ പറയുക അവർക്ക് പറയാനുള്ള ചാൻസ് കാര്യങ്ങൾ ഒന്നും കിട്ടാണ്ട് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരിക അപ്പം അവര് ചിലപ്പം നമ്മളെ തല്ലാൻ ഒക്കെ നോക്കുമെങ്കിലും നമ്മള് അതിനെതിരെ വാക്കുകൊണ്ടൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവര് തളർന്നു പോകുവാനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ ബലഹീനത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നമ്മളെ പളാ പറഞ്ഞിപ്പോൾ എന്താ പറയുക ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിച്ച് നമ്മളെ വല്ലാണ്ട് തളർത്തുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എൻ്റെ ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ സമയങ്ങളിൽ എനിക്കൊന്നും പറയാനും പറ്റില്ല എന്താ ചെയ്യണ്ടത് എന്നൊന്നും അറിയില്ല നമ്മള് മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം തളർന്നുപോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും ഇതാണ് മെയിൻ ആയിട്ട് ബലഹീനതയും ശക്തിയും എന്ന് വേണമെങ്കിൽ പറയാം